ജീവന്റെ അടിസ്ഥാനമാണ് ജലം ഭൂമിയില് ജീവിക്കുന്നത്തിന് മനുഷൃനു മാത്രമല്ല മൃഗങ്ങള്ക്കും സസൃങ്ങള്ക്കും എല്ലാം ജലം ആവിശ്യമാണ് നമ്മള് ഒരിക്കലും ജലം പാഴാക്കരുത് ദിവസം മുഴുവന് നമുക്ക് ജലത്തിന്റെ ആവശ്യമുണ്ട് ഒരു നേരം വെളുക്കുമ്പോള് നമുക്ക് ബ്രഷ് ചെയ്യാനും കുളിക്കാനും പല്ലുതേക്കാനും ചായ കുടിക്കാനും ഒക്കെ നമ്മള് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും പത്രം കഴുക്കുന്നതിനും അലക്കുന്നതിനും കുളിക്കുന്നതിനും മൃഗങ്ങള്ക്ക് കൊടുക്കുന്നതിനും സസ്യങ്ങള്ക്ക് നനയ്ക്കാനും ഒക്കെ നമ്മള് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് നമ്മള് ഒരിക്കലും വെള്ളം പാഴാക്കികളയരുത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി എപ്പോഴും ജലം സംരക്ഷിച്ചു സംരക്ഷിച്ചു വെക്കേണ്ടതാണ്